ആ അതെ പറഞ്ഞോളൂ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ഓക്കെ തലവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലേ മഴ എന്തെങ്കിലും നനഞ്ഞിരുന്നോ നനഞ്ഞിരുന്നല്ലേ ആ ഛർദ്ദി ഉണ്ട് ആ പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരുന്നോ മരുന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നോ ഒന്നേ കഴിച്ചുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം മൂന്ന് നേരം ഓരോ പാരസെറ്റാമോൾ കഴിക്കുക എന്നിട്ട് കുറയുന്നുണ്ടോ എന്ന് നോക്കുക ഏ എന്നിട്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരേണ്ടി വരും നമുക്ക് ഈ ആ ഭക്ഷണത്തിന് ശേഷം അതിപ്പോൾ നമക്ക് ഫുഡ് പോയിസണിംഗ് ആണോ അതോ വൈറൽ ഫീവർ ആണോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മരുന്ന് ഈ പാരസെറ്റാമോൾ കഴിച്ചിട്ട് കുറയുവാണെങ്കിൽ പ്രശ്നമില്ല ഇല്ലെങ്കിൽ വല്ല ഫുഡ് പോയിസണിംഗും ആയതായിരിക്കും അപ്പം നിങ്ങൾ വന്നിട്ട് നമുക്ക് ഈ യൂറിനും ബ്ലഡും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ഇവിടെത്തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി

അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല നിങ്ങൾക്ക് നോർമലി കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കാം അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട നിങ്ങൾ ഫുഡ് നോർമലി കഴിക്കുന്നത് പോലെ തന്നെ കഴിച്ചോ ഫുഡിന് ശേഷം പാരസെറ്റാമോൾ മൂന്ന് നേരം കഴിച്ച് നോക്ക് എന്നിട്ട് കുറവ്

ആ കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നാൽ മതി ഏ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ല കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്ന് വരണം നമുക്ക് ബ്ലഡും യൂറിനും ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറയുന്നില്ലെങ്കിൽ വന്നാൽ മതി കേട്ടോ ആ ഓക്കെ